തീരുമാനം എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ തീരുമാനം എടുത്തോണ്ടായത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു അപ്പോൾ ഞാൻ ബാക്കി ഉള്ള ആൾക്കാരെ ഞാൻ ഒന്നും നോക്കുന്നുണ്ടായിട്ടില്ല അത് കുറേ തരങ്ങളിൽ മണ്ടത്തരമായിട്ടും വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നല്ലത് ആയിട്ടും വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇത് ഡിഗ്രി എടുക്കുന്നത് ബി കോം ആണ് പക്ഷേ ഞാൻ പ്ലസ് ടു പഠിച്ചത് ഹുമാനിറ്റീസ് ആണ് അപ്പോൾ അതിൽ തന്നെ ഒരു മണ്ടത്തരമുണ്ട് കാരണം എനിക്ക് കോമേഴ്സിലേക്ക് പോകുമ്പോഴേക്ക് എനിക്ക് അക്കൌണ്ട്സിനെ കുറിച്ചിട്ട് ഒന്നും ഒരു കാര്യവും അറിയാവുന്നുണ്ടായിരുന്നില്ല പിന്നെ അതുകഴിഞ്ഞിട്ട് ഞാന് പ്ലസ് ടു കഴി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് അക്കൌണ്ട്സിലേക്ക് പിന്നെയും ചേരുന്നത് അക്കൌണ്ടിങ് ഡിപ്ലോമ കോഴ്സ് ആയിട്ട് എടുത്തിട്ട് പഠിക്കാൻ തീരുമാനിച്ചത് ആ പഠിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് എനിക്കൊരു ഇപ്പോൾ ഇത് ജോബ് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടാവുമ്പോഴേക്ക് ഞാൻ അതിനും കൂടി അതും ആരോടും ചോദിക്കാതെ തന്നെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു പക്ഷേ ആ എടുത്തത്തിന് ശേഷമാണ് ആ പോയതിന് ശേഷമാണ് അത് എനിക്കറിയുന്നുള്ളത് ഒരു മാർക്കെറ്റിങ് ഫീൽഡ് ആണ് അതൊരു കമ്പനിയിൽ ഒരു മാർക്കെറ്റിങ് ഫീൽഡ് ആണ് അതുമാത്രമല്ല നമ്മൾ വിചാരിച്ച വിചാരിച്ചത്ര സാലറിയ സാലറി ആയാലും വേറെ അങ്ങനെ ഒന്നും ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ എനിക്ക് വിചാരിച്ച് അത് മജയാക്കേണ്ടായിരുന്നു ഇവിടെ വരേണ്ടായിരുന്നു അങ്ങനെ ഒരു മണ്ടത്തരം തീരുമാനം എടുക്കേണ്ടായിരുന്നു എന്ന് അപ്പോൾ തോന്നി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തോന്നി അത് മതിയാക്കിയിട്ട് ഞാന് പിന്നെയും നാട്ടിലേക്ക് വരണ്ടത് വന്നു നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെയും അക്കൌണ്ട്സിലേക്ക് ചേർന്നുള്ളത് അതും രണ്ടാമതായിട്ട് വേറെ ഒരു സ്ഥാപനത്തിലേക്ക് എനിക്ക് അക്കൌണ്ട്സിൽ ചേരേണ്ടത് വന്നു ഇന്ന് എൻ്റെ ആ ഫസ്റ്റ് ഡേയ്സ് ആണ് ഈ അക്കൌണ്ട്സിൽ ചേർന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ദിവസമാണ് ഇന്ന് പിന്നെ ഇത് അതുമാ ഇത് ഇതുകൂടാതെ തന്നെ വേറെയും കുറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് കാരണം എടുത്തുചാട്ടത്തിലാണ് കൂടുതലും എൻ്റെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഞാന് ഇത് ഓരോ എടുത്തുചാട്ടം മീൻസ് ആരും പറയാതെ തന്നെ ആരും സപോർട്ട് ചെയ്യാതെ തന്നെ ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് അതിൽ തന്നെ കുറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് എക്സാമ്പിൾ ഇപ്പോൾ ഇത് ഒരു അടിപിടി ആയാലും അതല്ലെങ്കിൽ ഒരാളുടെ സംസാരിക്കുന്ന രീതി ആയെങ്കിലും ഇതൊക്കെ എന്റേത് എൻ്റെടുത്തുനിന്ന് വന്നിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് മാറിയിട്ടുള്ളത് കാരണം ഇത് ഞാൻ പറയുന്നത് ചിലപ്പോൾ അവർക്ക് നെഗറ്റീവ് ആയിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക ഓപ്പോസിറ്റ് നിൽക്കുന്നുള്ള ഒരാൾക്ക് നെഗറ്റീവ് ആയിട്ടാവും തോന്നുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ നെഗറ്റീവ് ആയിട്ടാവുമ്പോഴേക്ക് അതൊരു ചെറിയ ഒരു അടിപിടി കേസിലേക്ക് ആയിട്ട് മാറേണ്ടി വരുന്നത് അടിപിടി ആക്കുന്ന ആ ടൈം പ്രശ്നമില്ല നമുക്ക് അത് സാരം ഇല്ല അത് ആ അത്രക്കുള്ളതില്ല കഴിഞ്ഞതല്ലേ അങ്ങനെയെല്ലാവരും വിചാരിക്കും പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളത് ആണ് പണി എന്ന് പറയുന്നത് കേസ് ആവും അതാവും ഇതാവും പിന്നെ അങ്ങനെ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ടെൻഷൻ അടിക്കേണ്ടി വരും കുറേ സമയം ചിലവഴിക്കേണ്ടി വരും അപ്പം വിചാരിക്കും നമ്മൾ ഈ ഇങ്ങനെ വെറുതെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അടിപിടി കൂടേണ്ടായിരുന്നു വെറുതെ ചിരിച്ച് അളക്കാമായിരുന്നു ഇപ്പോൾ നമ്മൾ വെറുതെ മിസ്റ്റേക്ക് സംഭവിച്ചു അങ്ങനെയൊക്കെ നമുക്ക് അപ്പോൾ തോന്നും അപ്പം പിന്നെ നമുക്ക് തോന്നിയിട്ട് ഇനി കാര്യമില്ലല്ലോ കാരണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് ആയിപ്പോയി അപ്പോൾ അതും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓരോരോ മിസ്റ്റേക്ക് ആണ് അതു കൂടാതെ ഇപ്പോൾ നമ്മൾ പാരന്റ്സ് ആണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സപോർട്ട് ആയിട്ടുണ്ടാകുന്നത് പാരന്റ്സ് ആയിരിക്കും അത് ഏത് സംഭവത്തിലായെങ്കിലും ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ളതായെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ട് സംഭവം ഇത് നമുക്ക് സപോർട്ട് ആയിട്ട് വരുന്നുണ്ടാവുക പാരന്റ്സ് ആയിരിക്കും പാരന്റ്സ് ആയിട്ട് പറയുവാണെങ്കിൽ പാരന്റ്സ് പറയും അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു അങ്ങനെയേ പറയാറുള്ളൂ പക്ഷേ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ് നെഗറ്റീവ് ആയിട്ടല്ല പറയുന്നുള്ളത് സാധാരണ ഫ്രണ്ട്സ് ആകുമ്പോൾ പറയും നീ അങ്ങനെ ചെയ്തോ അതൊന്നും പ്രശ്നമില്ല അങ്ങനെ പറയും അത് അവർ നമ്മളെ ഇത് പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല അവർ നമുക്കൊരു സപോർട്ട് ആയിട്ട് ഒരു ബലമായിട്ടാണ് പറയുന്നുണ്ടാകുക പക്ഷേ അത് നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ആ ഒരു ടൈമിൽ മാറുന്നുണ്ടാകുക നമുക്ക് അറിയുന്നത് ഇപ്പോൾ അല്ല ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് എത്തിയിട്ടാവുമ്പോഴായിരിക്കും നമുക്ക് അറിയുന്നുണ്ടാവുക ഈ ഒരു കാര്യം ചെയ്യേണ്ടായിരുന്നു വെറുതെ ആണ് ചെയ്തത് ഇങ്ങനെ ഒരു ഞാൻ അലമ്പിലേക്ക് ഇറങ്ങേണ്ടായിരുന്നു അപ്പോൾ തോന്നും അപ്പോൾ പിന്നെ തോന്നിയിട്ട് ഒരു കാര്യവുമില്ല കാരണം നമ്മൾ പെട്ടുപോയി പെട്ടതിന് ശേഷം പിന്നെ ഒന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ ഒരു ഇതിലേക്ക് എത്തും അതുകൂടാതെ ഇപ്പോൾ പഠനത്തിലല്ലാതെ ഇത് വേറെ ഒരു കാര്യത്തിലായാലും രാത്രിയായാലും രാത്രി വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകുമ്പോൾ ആയാലും ഈ ഒരു സംഭവത്തിലൊക്കെ ഇത് നമ്മളെ എടുത്തുചാട്ടം നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിക്കുന്ന ഓരോ തീരുമാനങ്ങൾ ഉണ്ടല്ലോ ആ തീരുമാനമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ടാവുക അല്ലാതെ നമ്മൾ വേറെ ആരോടും കൂടി ഒരു ഡിസിഷൻ ചോദിച്ചതിന് ശേഷമാണ് അതങ്ങനെ ആക്കണമായിരുന്നോ ഇങ്ങനെ ആക്കണമായിരുന്നോ എന്ന് ചോദിച്ചതിന് ശേഷം അവർ ആ ഓക്കെ സെറ്റ് അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല കാരണം അവർ നമുക്ക് സപോർട്ട് ആയിട്ട് ആ അങ്ങനെ ചെയ്തോ എന്ന് പറയുമ്പോഴേക്ക് അതൊരു നല്ലൊരു കാര്യമായിട്ടായിരിക്കും അവർ പറയുന്നുണ്ടാവുക പക്ഷേ നമ്മളതൊന്നും നോക്കില്ല നമ്മൾ ഫസ്റ്റ് നമ്മളെ കാര്യം നോക്കിയിട്ട് ആരോടും ചോദിക്കാതെ തന്നെ ആ ഒരു ഡിസിഷൻ എടുത്ത് ചെയ്തിട്ട് അത് മണ്ടത്തരാമായാൽ മാത്രമേ നമ്മൾ വേറെ ഒരാളോട് ചോദിക്കുള്ളൂ ഞാൻ അങ്ങനെ ചെയ്തതിൽ മണ്ടത്തരമായോ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ആ ഒരു ടൈംമിൽ മാത്രമേ ചോദിക്കുള്ളൂ അതല്ലാതെ നമ്മൾ ഒരു ഡിസിഷൻ എടുത്തിട്ട് അത് ന സത്യമാണ് അത് കറെക്റ്റ് ആണ് എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളാരോടും ചോദിക്കാനും പോകില്ല അതിനുള്ള ഒരു റിപ്ലൈ നമ്മൾ ചോദിക്കുകയുമില്ല അത് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ട് പോകും നമ്മളൊരു നെഗറ്റീവ് ഫേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആയിരിക്കും നമുക്ക് ഒരാളോട് ചോദിക്കണമെന്നും അതല്ലെങ്കിൽ ഇത് ആ ആളോട് ചോദിച്ചിട്ട് ഇത് കറെക്റ്റ് തന്നെയാണോ ഞാനങ്ങനെ പറഞ്ഞത് കറെക്റ്റ് തന്നെയാനോ അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് തോന്നേണ്ടി വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് തോന്നും അപ്പോൾ തോന്നിയിട്ട് പിന്നെ ഒരു കാര്യവുമില്ലല്ലോ